വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി അവർ മറ്റ് ഇടങ്ങളിലൊക്കെ പോകാറുണ്ട് എന്നാൽ ഉദാഹരണമായി പറഞ്ഞാൽ ജെർമ്മനി അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് കാരണം അവർക്ക് അവിടെ നിന്ന് പഠിച്ച് അതോട് കൂടി ജോലിയും ചെയ്യാം അങ്ങനെ സമ്പാദിക്കുകയും സ്വന്തമായിട്ട് ഒരു കാലിൽ നിൽക്കുകയും ചെയ്യാം എന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വിചാരിക്കുന്നത് അതുകൊണ്ട് അവർ ദൂരോട്ടാണ് കൂടുതലായും ആശ്രയിക്കുന്നത് നമ്മുടെ നാടുകളെക്കാട്ടിലും കൂടുതൽ പണം സമ്പാദിക്കാനും ഇതാണ് ഏറ്റവും കൂടുതലായ മാർഗം നമ്മൾ നമ്മുടെ കുട്ടികൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോയാൽ കൂടുതൽ പണം ലഭിക്കാനും കൂടുതൽ സൗകര്യത്തോട് കൂടി ജീവിക്കുകയും ചെയ്യാം നമ്മുടെ ഈ സിസ്റ്റം ഇപ്പം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കൂടുതൽ പണം സമ്പാദിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ശ്രമിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ അവർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി നമ്മുടെ സ്ഥലങ്ങളിൽ കൂടാതെ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ എന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് കൂടുതലും ശ്രമിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കൂടുതൽ നടത്തിക്കാനും വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാനും അതിനുള്ള പണം സമ്പാദിക്കാനുമായിട്ട് അവർ പോകുന്നു ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചെടുത്തോളം മുന്നോട്ട് പോകും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്തോറും നമുക്ക് പണം കൂടുതൽ ആവശ്യമായി വരുന്നു അങ്ങനെ ഈ ഈ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കാര്യമില്ല എന്ന് കണ്ടാണ് പലരും വെളിയിലോട്ട് പോകുന്നതും പണം സമ്പാദിക്കാനുമായിട്ട് പോകുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ എത്ര രൂപ മുടക്കിയാണേലും മക്കളെ പഠിപ്പിക്കാനായിട്ട് വെളിയിലോട്ട് അയയ്ക്കാൻ കാ സമ്മതിക്കുന്നു കാരണം ഈ ഇവിടെ നിന്ന് ഒരു കാര്യമില്ല എന്നാണ് ചിലരുടെ എല്ലാം മനോഭാവം അങ്ങനെ വരുമ്പോൾ കൂടുതൽ കുട്ടികൾ വെളി രാജ്യത്തിനെയാണ് ആശ്രയിക്കുന്നത് അവിടെ നല്ല വിദ്യാഭ്യാസവും കിട്ടും കൂടുതൽ തൊഴിലും സമ്പാദിക്കാം അങ്ങനെ വരുമ്പോൾ എല്ലാവരും എല്ലാവരും അവരുടേതായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകും അങ്ങനെ അങ്ങനെ കുട്ടികൾക്കെല്ലാം പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളിലോട്ടുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും